ഹായ് ഇത് എയർടെൽ ഇത് എയർടെൽ കമ്മ്യൂണിക്കേഷൻ സർവ്വീസല്ലേ ഞാനിപ്പോൾ വിളിക്കുന്ന കാരണമെന്താണെന്നു വെച്ചാൽ എൻ്റെ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ എനിക്ക് ഒട്ടും ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലാത്ത പ്ലാനാണ് അപ്പം ഞാൻ വിളിക്കാൻ കാരണമെന്താണെന്നു വെച്ചാൽ എനിക്കിപ്പം എൻ്റെ ഈ ഡേറ്റാ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതെൻ്റെ ഇനിയിപ്പം വേറെയുള്ള പല സർവ്വീസസും അതല്ലാതെ പിന്നേ ഉണ്ടാവും പ്ലാൻസും പിന്നെ അതിനു വേണ്ട ഡീറ്റെയ്ൽസെല്ലാം വേണ്ട ഡീയെൽസെല്ലാം അറിയാനാണ് അതുകൂടാതെ ഞാൻ എന്തൊക്കെ പ്രൂഫാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു ഒരു ഡീറ്റെയ്ലായിട്ട് എന്തെങ്കിലും അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്